പത്തനംതിട്ട ജില്ലയിലെ

ടുറിസ്റ്റ് പ്ലേസ് ആണ് ഗവി എന്നു പറയുന്ന സ്ഥലം അവിടെ തടാകങ്ങളും നദിയിലെ കുട്ടവഞ്ചിയിൽ സവാരിചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു കുട്ടവഞ്ചിയിലെ സാധാരണ നാല് യാത്രികരും അല്ലേൽ മൂന്ന് യാത്രികരും അതിനെ നയിക്കുന്ന തുഴയാനായിട്ട് ഒരാളും കൂടെയാണ് ഈ കുട്ടവഞ്ചിയിൽ സാധാരണ കാണുന്നത് ഈ ഹോം സ്റ്റേയ് സംബന്ധിച്ച് പറഞ്ഞാൽ അതിൻ്റെ പരിസരങ്ങളില് പ്രൈവറ്റ് വീടുകൾ വാടകയ്ക്കെടുത്ത് അതിന് ഹോട്ടൽ എന്നുപറയാൻ പറ്റില്ല ഹോം സ്റ്റേയ് തന്നെയാണ് അത് വീടുകള് വാടകയ്ക്ക് എടുത്ത് വരുന്ന തീർത്ഥാടകരെ അല്ലേൽ ടൂറിസ്റ്റുകളെ അവിടെ താമസിപ്പിക്കുക പതിവാണ് അതുപോലെ അതിൽ തന്നെ പല റൂം മുറികൾ ഉണ്ടെങ്കിലും അതില് ആവശ്യത്തിനുള്ള സ്ഥലം മാത്രം വിട്ടു കൊടുക്കുന്ന ഒരു രീതിയുമുണ്ട് മുഴുവൻ വീടുവേണമെങ്കിൽ അങ്ങനെ ഇല്ല എനിക്ക് ഒരു മുറി അതിൻ്റെ സൗകര്യങ്ങളും ടോയിലെറ്റോ മതിയെങ്കിൽ അങ്ങനെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഗവി അപ്പം അവിടെ സൗജന്യമായിട്ട് താമസിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ആ പ്രദേശത്ത് ഇല്ല അല്ലാതെ അവിടെ നമ്മുടെ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഹോം സ്റ്റേ പോലെ ഉള്ള ഒരു ഉ പരിപാടി അല്ലേൽ കാഴ്ച്ച വേറെയൊന്നും അത്രയൊന്നും ഭംഗിയായിട്ട് വേറൊരുസ്ഥലത്തും ഇല്ല അതിനിങ്ങനെ ഹോം ഈ വീടുകള് മാത്രമാണ് അവിടെ ലഭ്യമായിട്ടുള്ളത്